അതെയതെ ആ അ ഓക്കെ സാർ എത്ര പത്ത് പേരല്ലെ സാർ എന്നാണ് എന്നത്തേക്കാണ് പോവാൻ ചാ ആലോചിക്കുന്നത് ആ ആ ആ ഓക്കെ ഓക്കെ അപ്പം സാറിൻറെ ബഡ്ജറ്റ് ഒക്കെ ഏകദേശം എങ്ങനെ വരും ആ ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ആണെങ്കിൽ പല ഹോസ്റ്റൽസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ ത്രീ സ്റ്റാർ സ്റ്റേ അങ്ങനെ ഓരോന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഞാനൊരു ഫൈവ് സ്റ്റാർ രീതിയിൽ നോക്കട്ടേ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടി വരും നമ്മുടെ ഭക്ഷണ ഫുഡ് ഫുഡ്ഡും എല്ലാം വേണ്ടേ സാറിന് അ മൂന്ന് നേരം ത്രീ വീ കോഴ്സ് മീൽ ഉണ്ടാവും പിന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റേ മീൻസ് ട്രാവലും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആയിരിക്കാം ഞാൻ നോക്കുന്നത് ഇപ്പം നിങ്ങൾ ഇപ്പം പത്ത് പേർ ഉള്ളതുകൊണ്ട് ഒരുമിച്ച് പോരാൻ ബെറ്റർ ഒരു ട്രാവലർ ആയിട്ട് എടുക്കുന്നതായിരിക്കില്ലേ ഒരു ടെൻ സീറ്റർ ട്രാവലർ റെഡി ആക്കിത്തരാം അപ്പം അവർ തന്നെ നിങ്ങളെ മഡ്ഗൗൺ സ്റ്റേഷൻ പിക്കപ്പ് ചെയ്ത് നമ്മുടെ സ്റ്റേ വരുന്നത് കണ്ടോലിമിലായിരിക്കും നമ്മുടെ റിസോർട്ടുകൾ എല്ലാം അവിടെയാണ് അപ്പോൾ അവിടെ സ്റ്റേ അങ്ങോട്ട് എത്തിച്ച് പിന്നെ അവിടുന്ന് ഫ്രെഷ് അപ്പ് ഒക്കെയായി ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഗോവ ഫുൾ കറങ്ങിക്കാണിക്കുന്ന രീതിയിൽ റെഡി ആക്കിത്തരാം അപ്പോൾ ഞങ്ങളെ ആ ടിക്കറ്റും വേണമെങ്കിൽ ഞങ്ങൾ തന്നെ നോക്കാം നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് കയറേണ്ടത് എന്നുവെച്ചാൽ അവിടുന്ന് ഉള്ള ടിക്കറ്റും ഞങ്ങൾ തന്നെ റെഡി ആക്കിത്തരാം ഓ ആ ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ ഒന്ന് ഞാൻ ഇപ്പോൾ നോക്കിയത് വെച്ചിട്ട് ഏഴാം തീയതി ഇപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ഉണ്ട് അപ്പോൾ നമ്മൾ എട്ടാം തീയതി വെളുപ്പിനെ ഗോവയിൽ എത്തുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് എട്ടാം തീയതി ഒമ്പതാം തീയതി ഒക്കെ അവിടെ കറങ്ങിയിട്ട് പത്താം തീയതി വേണമെങ്കിൽ തിരിച്ചും ടിക്കറ്റ് ഉണ്ട് അതെ ആ ആ അ ബീച്ച് അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ സാറിന് ബഡ്ജറ്റ് കൂടി കൂട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബീച്ച് റിസോർട്സും വേണമെങ്കിൽ നോക്കാം ബീച്ച് റിസോർട്ട്സ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആയിട്ടൊരു ബീച്ച് ഇപ്പം ഉണ്ടാവും അപ്പോൾ വേറെ ടൂറിസ്റ്റിൻ്റെ ഇതായിട്ടൊന്നും കാണില്ല നല്ല രീതിയിൽ നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും അതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒത്തിരി കുറവായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്

ആ ഇത് ഞാൻ എന്നാൽ ഒരു ദിവസത്തിനുള്ളിൽ ഇന്നുതന്നെ പറ്റുമെങ്കിൽ ഇന്ന് രാത്രിക്കുള്ളിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പ് ചെയ്യാം അ ഓക്കെ സാറിനിപ്പോൾ ഇവിടുന്ന് ഉള്ള ട്രാവലിങ് നമ്മൾ തന്നെ നോക്കുവല്ലേ ഓക്കെ ഫ്ലൈറ്റ് വേണം എന്നില്ലല്ലോ ട്രെയിൻ തന്നെ പോരേ ഓ ഓക്കെ ഓക്കെ ശരി അതെ വെജ്ജും നോൺ വെജ്ജും അവൈലബിൾ ആണ് ഓക്കെ ശരി